പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഒന്പത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച്